ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ ക്യാമറ എന്നു പറയുന്ന സാധനത്തിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് വരുന്നൊരു കാലമാണ് എല്ലാവരും തന്നെ ഇപ്പോൾ ഫോൺ കാര്യങ്ങളിലെ ക്യാമറകളും കാര്യങ്ങളുമൊക്കെയാണ് ആൾമോസ്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ക്യാമറാസിൽ തന്നെ എസ് എൽ ആർ ഡി എസ് എൽ ആർ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായ മാർക്കറ്റിംഗ് കാര്യങ്ങളുണ്ട് ഡി എസ് എൽ ആർ ക്യാമറയ്ക്ക് പ്രത്യേകമായൊരു ഡിമാന്റും കാര്യങ്ങളും ഉള്ളതാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയുള്ള ഇമേജസും കാര്യങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറകൾ തന്നെയാണ് ഇപ്പം മെയിൻലി എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് അത് ഓരോന്നും അതിന്റെ ബ്രാന്റും അതിന്റെ വാല്യു അനുസരിച്ച് ഡിപ്പെന്റബിൾ ആണ് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾത്തന്നെ അവൈലബിൾ വരുന്നതാണെന്നുണ്ടെങ്കിൽത്തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഇരുപത്തയ്യായിരം തൊട്ടിട്ട് രണ്ട് രണ്ടര ലക്ഷം വരെ ഉള്ള ക്യാമറകൾ അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാം ഫോട്ടോഗ്രാഫിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് പിന്നെത്തന്നെ എന്താണെന്നു വച്ച് കഴിഞ്ഞാൽ തന്നെ എസ് എൽ ആർ ക്യാമറകളും ഡി എസ് എൽ ആർ ക്യാമറകളും തമ്മിൽ എന്നു പറയുമ്പോൾ അതിന്റെ ലെൻസ് കാര്യങ്ങൾ അനുസരിച്ചാണ് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് അതിലിടുന്ന ലെൻസിന്റെ ഇതനുസരിച്ച് നമ്മളെടുക്കുന്ന പിക്ചറും ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഫോട്ടോസിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെക്കൂടി കുറഞ്ഞും ഒക്കെ ഇരിക്കും പിന്നെ ആൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എല്ലാ ആൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്യാമറകളിലാണ് കൂടുതലും ഫോട്ടോ എടുക്കുന്നത് ഫോണുകൾ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽപ്പോലും അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ഇവെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൺഡക്ട് ചെയ്യുമ്പോഴും എല്ലാം ഇനിയിപ്പോൾ വിവാഹം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്യാമറകൾ അത് ആൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഡി എസ് എൽ ആർ തന്നെയാണ് യൂസ് ചെയ്യാറ് കെനോൺ നിക്കോൺ സോണി അങ്ങനെ ഓരോ ബ്രാന്റിന്റെ ഓരോന്നായിട്ട് ഡിപ്പെന്റബിളായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ വെറൈറ്റി കാര്യങ്ങൾ അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഒക്കെ കൂടി വരും പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും സൂമിംഗും എല്ലാം കൊണ്ടും ആണ് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഡിപ്പെന്റബിൾ വരിക അതിന്റെ സൈസും ഫോട്ടോസിന്റെ സൈസ് കാര്യങ്ങൾ പിന്നെ അതിലെ ഷട്ടർ സ്പീഡ് കാര്യങ്ങളൊക്കെ ഡിപ്പെന്റബിളായിട്ടാണ് ക്യാമറേന്റെ ഇത് വരുന്നത് ക്വാളിറ്റി കാര്യങ്ങൾ വരുന്നത് അതുപോലെ അതിൽ വരുന്ന ഫോട്ടോസിനാണെങ്കിൽ തന്നെ എല്ലാം അതിന്റെ സൈസ് കാര്യങ്ങളും നമ്മൾ അതിന്റെ ഉള്ളിൽ എടുക്കുന്ന ഓരോ മൂഡ് കാര്യങ്ങളും ഡിപ്പെന്റബിൾ ചെയ്തിട്ടാണ് ഓരോന്നും വരുന്നത്